എനിക്ക് കൂടുതലും വായിക്കാനിഷ്ടം ബാലരമ കളിക്കുടുക്ക പിന്നെ ഈസോപ്പ് കഥകള് അങ്ങനെ ചെറിയ ചെറിയ മിനിക്കഥകള് വായിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം കാരണം അതില് നിന്ന് നമുക്ക് കൂടുതല് പഠിക്കാനും ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങള് രൂപപ്പെടുത്താനും അതിനെല്ലാം കൂടുതല് സഹായിക്കും എല്ലാ കഥകളേന്തന്നെ ഒരു ഗുണപാഠവുണ്ടാകും ഇങ്ങനെ ചെയ്യരുത് മനുഷ്യനെ നേരെ വഴിക്ക് നേര്വഴിക്ക് നടത്താനുള്ള ഓരോരോ കാര്യങ്ങളതില് നിന്ന് നമുക്ക് ലഭ്യമാക്കും അത് ഏത് നേരവും വായിക്കുന്നതെനിക്കിഷ്ടം തന്നെയാണ് എപ്പോഴും വായിക്കാന് തോന്നാറുണ്ട് ചെറിയ ചെറിയ കഥകള് അതുപോലെതന്നെ ബാലരമയിലെ ആണെങ്കിലും ജെമ്പനും തുമ്പനും അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ കഥകള് തമാശയുള്ള ഫലിത രൂപത്തില് എഴുതിയാല് എഴുതിയിരിക്കുന്ന കഥകളെല്ലാം എനിക്കിഷ്ടമാണ് അത് സിനിമയെ കാര്ട്ടൂണ് പോലെ കാണാനും എനിക്കിഷ്ടമാണ്